എത്ര ദിവസം ആയി തുടങ്ങിയിട്ട്

എന്തെങ്കിലും മരുന്ന് വീട്ടിൽ നിന്ന് കഴിച്ചോ അതോ എവിടെങ്കിലും കാണിച്ചോ ഓക്കേ തണുപ്പുള്ള എന്തെങ്കിലും കഴിക്കുക അല്ല മഴ നനയുക അങ്ങനെ എന്തെങ്കിലും ഈ ദിവസം ഓക്കേ ഇപ്പം ഞാന് ഇപ്പം തൊണ്ട വേദന ഉണ്ടോ ജലദോഷം കഫക്കെട്ടുണ്ടോ അതായത് കഫം ആയിട്ടാണോ പിന്നെ പോകുന്നത് അതെ തൊണ്ടവേദന ഇല്ല ചുമ ഉണ്ട് അല്ലെ മെല് വേദനയോ ഓക്കേ ഞാൻ എന്തായാലും പാരസെറ്റോമോൾ എഴുതാം പനിക്ക് വേണ്ടിട്ട് പിന്നെ തലവേദന ഉണ്ടോ തലവേദന ഇല്ല ജലദോഷത്തിന് ഒരു മരുന്ന് എഴുതാം അപ്പം അത് രണ്ട് നേരം കഴിച്ച മതി രാവിലേയും ഭക്ഷണത്തിന് മുമ്പും വൈകുന്നേരം ഭക്ഷണത്തിന് മുമ്പും പിന്നെ മൂന്ന് നേരം പാരസെറ്റോമോളും പിന്നെ ചുമക്ക് ഇല്ല കുഴപ്പമില്ല അല്ലെ ഉണ്ട് ചുമക്കും കൂടെ ഉള്ള സിറപ്പ് എഴുതാം പിന്നെ കുടിച്ച് നോക്കിയിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കുറഞ്ഞില്ലേൽ നമുക്ക് ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം പിന്നെ വേറെ വല്ല പ്രശ്നം ഒന്നുമില്ലല്ലോ അല്ലെ പിന്നെ ക്ഷീണം ഫുഡ് കഴിക്കുമ്പം എന്തെങ്കിലും വോമിറ്റിംഗ് ടെൻഡൻസി അങ്ങനെ ഒന്നുമില്ലല്ലോ അല്ലെ അപ്പോൾ ഇത് തന്നെ ചെയ്യാം പിന്നെ നല്ല തിളപ്പിച്ച് അറിയ വെള്ളം വേണ്ട ഒരു ഇളം ചൂട് ഉള്ള വെള്ളം തന്നെ കുടിക്കാൻ നോക്കുക പിന്നെ ചൂട് പിടിക്ക് ചൂട് പിടിക്കുന്നത് നല്ലതാണ് കുറച്ച് തിളച്ച വെള്ളത്തിലേക്ക് പനി കൂർക്ക തുളസി അതൊക്കെ ഇട്ടിട്ട് ചൂട് പഠിക്കുക വലിയ കട്ടിയുള്ള ആഹാരം കഴിക്കാതിരിക ഒരു പൊടിയരി കഞ്ഞി അങ്ങനെ ഉള്ള എന്തേലും ഒക്കെ കഴിച്ചാൽ മതി രണ്ട് ദിവസത്തേക്ക് കുറഞ്ഞ കഴിയുമ്പം കുഴപ്പമില്ലലോ കട്ടിയുള്ളത് കഴിക്കണ്ട വേറെ ആർക്കും കുഴപ്പമില്ലലോ വീട്ടില് പനി അങ്ങനെ ഉള്ള വൈറൽ ഫീവർ ഉള്ളത് കൊണ്ടേ നമ്മള് നോക്കണം മാസ്ക് ഒക്കെ വെച്ച് അകത്താണെങ്കിലും മാസ്ക് ഒക്കെ വെച്ച് നടന്ന മതി തണുപ്പ് അടിക്കണ്ട മരുന്ന് കുടിച്ച് നോക്കിയിട്ട് നമുക്ക് കുറവില്ലേല് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്താന്ന് വെച്ചാല് ചെയ്യാം ഓക്കേ അപ്പോൾ ശരി